എനിക്കേറ്റവും ഇഷ്ട്ം താജ് മഹാലിൽ ഫോട്ടോ എടുക്കണമെന്നാണ് കാരണം അവിടെ നല്ല വ്യൂവാണ് നമുക്ക് താജ് മഹാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുംതാസിന് വേണ്ടി ഷാജഹാൻ പണി കഴിപ്പിച്ച ഒരു വലിയൊരു കൊട്ടാരം പോലുള്ള ഒരു ഇതാണ് അപ്പോൾ അവിടെ അവിടെ വച്ചിട്ടാണെനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടീട്ട് താത്പര്യം കാരണം നമുക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും യാത്ര ചെയ്തിട്ടോരോ സ്ഥലങ്ങളും ഫോട്ടോയെടുക്കാനൊക്കെ ഭയങ്കര താത്പര്യമാണ് പിന്നെ ഇന്ത്യാ ഗേറ്റ് ഫോട്ടോ എടുക്കാനൊരു താത്പര്യം ഉണ്ട് കാരണം ഇന്ത്യാഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാക്കിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അതായത് ഇന്ത്യഗേറ്റ് ആ ഗേറ്റിന്റെ അപ്പുറത്ത് പാക്കിസ്ഥാനും ഇപ്പുറത്ത് ഇന്ത്യയുമാണ് അപ്പം അവരുടെ ഇന്ത്യാഗേറ്റിന്റെ അവിടെ വച്ചിട്ട് ഈ റിപ്പബ്ലിക്ക് ദിനത്തിലൊക്കെ നല്ല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അവരുടെ ഓരോ പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അല്ലാണ്ട് ഈ നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിലാണെങ്കിലും നല്ല രീതിയിൽ നല്ല നേച്ചർ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഇഷ്ട്മാണ് പിന്നെ എന്ത് വച്ച് കഴിഞ്ഞാൽ പല പല സ്ഥലങ്ങളിലും പല പല കാഴ്ച്ചപ്പാടുകളാണല്ലോ പിന്നെ പല പല ആചാരങ്ങളും അതിന്റെയൊക്കെ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്